കൃഷിത്തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ കൃഷിത്തൊഴിലിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മനഃസംതൃപ്തിയാണ് അതുപോലെതന്നെ വിഷ രഹിതമായിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റും എന്നതും വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്